എൻ്റെ വീട്ടിലൊരു പശുവുണ്ട് അതിനുവേണ്ടി ഞാൻ ആ ആദ്യം ആ പശുവിനെ ഒരു ആലയിലാണ് ആക്കിയത് ആല എന്നാൽ അതിൻ്റെ ഒരു വീട് അതിനെ നമ്മൾ ഡെയ്ലി വൃത്തിയാക്കും അടിച്ച് വാരി കഴുകി അതിൻ്റെ മൂത്രം ഒക്കെ കഴുകി കളയും ചാണകം വേറൊരു സ്ഥലത്തേക്കുമാറ്റി പിന്നെ അതിൻ്റെ കൊളമ്പിലെല്ലാം ചാണകമെല്ലാം ഉണ്ടാവും അതൊക്കെ വൃത്തിയാക്കി കൊടുക്കും പിന്നെ അതിന് വേണ്ടിയിട്ട് വെള്ളം കൊടുക്കും പിന്നെ തവിട് അങ്ങനത്തെയൊക്കെ പിണ്ണാക്ക് അതൊക്കെ കൊടുക്കും പിന്നീട് അതിന് പച്ച പുല്ല് അതിന് വേറെ തന്നെ സൗകര്യം ആക്കിയിട്ടുണ്ട് പുല്ല് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ തന്നെ സൗകര്യം എല്ലാം ആക്കിക്കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പാൽ കറക്കും പിന്നെ അതിന് അണുങ്ങ് മറ്റ് പോലത്തെ ജന്തു ജാ ജന്തുക്കളെ കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അരികത്ത് പൊ മടലൊക്കെ വെച്ചിട്ട് പുക പുക വരുത്തിക്കും പിന്നെ അതിന് ന്ന പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പാട്ടിൻ്റെ സൗകര്യം ആക്കിക്കൊടുക്കൽ അങ്ങനെ ഒക്കെ ചെയ്യും